ഹലോ ഇത് പച്ചക്കറി കടയല്ലേ എന്തൊക്കെ പച്ചക്കറികളുണ്ട് ആ നല്ല ഫ്രഷ് ആണോ ആ എന്നാൽ അങ്ങനെയാണെങ്കിൽ എനിക്കൊരു കല്ല്യാണ ആവശ്യമുണ്ട് അത് കുറച്ച് കൂടുതൽ സാധനം വേണം ഇത്തിരി വില കുറച്ചും തരണം അതുകൊണ്ട് എന്താ സ്ഥലം ഇവിടെ മാനന്തവാടി

ആ അത് പറയാം എനിക്ക് പച്ചക്കറികൾ നല്ല പച്ചക്കറി അടുത്ത ഞാറാഴ്ച്ച ആവുമ്പോൾ കിട്ടണം എല്ലാ എല്ലാ പച്ചക്കറികളും വേണം ആ രാത്രി കൊണ്ടുവരണം അല്ലാണ്ട് പിന്നെ ഞാറാഴ്ച്ചത്തെ പരിപാടിക്ക് അത് കഴിഞ്ഞിട്ട് കൊണ്ടുവന്നിട്ട് കാര്യമില്ലല്ലോ പച്ചക്കറി വെള്ളരി ഇളവൻ വെണ്ടയ്ക്ക ആ അല്ലേ വെണ്ടയ്ക്ക ഈ രണ്ട് മൂന്ന് കിലോ മുരിങ്ങക്കായി ഒര് രണ്ട് കിലോ പിന്നെ ഇളവൻ ഒരു പത്ത് അങ്ങനെ എല്ലാം എല്ലാം വേണം കൂടുതൽ വേണം മൊത്തം പച്ചക്കറീന്റെ പരിപാടിയാണ് ഓഹ് ഓഹ് ആ വേണം വേണം അത് കുറച്ച് മതി അത് അവിയലിലെല്ലാം ഇടാൻ പാകത്തിന് കുറച്ച് മതി ഒരു ഒരു കിലോ മതി ഒരു കിലോ മതി ആ ആ ഒരു ആ ഒരു കിലോ രണ്ട് കിലോ എടുത്തോ ആ പറയാം ഞാൻ പറയാം പറയാം ഓഹ് കിട്ടും കിട്ടും എന്റെ പേര് ശോഭ ആ സ്ഥലം ഇവിടെ മാനന്തവാടി മാനന്തവാടി തോണിച്ചാൽ എന്നു പറഞ്ഞെ പൈങ്ങാട്ടിൽ എന്നു പറഞ്ഞെ വിളിച്ചാൽമതി വിളിക്കുമ്പോൾ നമ്മൾ പറയാമല്ലോ